ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിൽ അത്യാവശ്യം നല്ല ക രി വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ളത് ഈ യാത്ര ചെയ്യുമ്പോഴുള്ള വ്യൂ തന്നെയാണ് അപ്പം നമ്മൾ കണ്ടതിൽ ഇപ്പം എന്താണ് പറയുക അടിപൊളി ആയിട്ടുള്ള വ്യൂ എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞ് കോടമഞ്ഞൊക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ വയനാട്ടിലേക്ക് കയറി വരുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് അതൊക്കെ കാണുമ്പോഴും നമ്മൾ എന്താണ് പറയുക വീഡിയോയും കാര്യങ്ങളൊക്കെ ഫോണിൽ ട്രക്കിങ്ങിന് ഇടയിൽ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ട്രാ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ട്രക്കിങ്ങിന് ഇടയിലൊക്കെയാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് പിന്നെ എന്താണ് പറയുക മഴ പെയ്യുന്നത് വയനാട്ടിലേക്കൊക്കെ മഴയൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് വയനാട്ടിലെ ഈ ചുരം പോലെയുള്ള സ്ഥലത്തൊക്കെ മഴയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എന്തായാലും കോടമഞ്ഞ് തന്നെ വയനാട്ടിലെ ഒരു വലിയ അനുഗ്രഹം തന്നെയായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറേ വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയനാട് ജില്ലയിൽ ഇതൊരു വലിയ കാര്യമായിട്ടൊക്കെയാണ് കാണ് ഞാൻ കണ്ടുവരുന്നത് അപ്പോൾ ഇതുതന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം